അച്ചടിച്ച പുസ്തകകങ്ങൾ വായിക്കുന്നത് തന്നെയാണ് ഞ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇലക്ട്രോണിക്സ് പതിപ്പുകളൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം മൊബൈലിലൊക്കെ വരുന്നുണ്ട് ഓക്കേ പക്ഷേ എങ്കിൽക്കൂടിയും അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെ വായിക്കാനായിട്ടാണ് കാരണം അതിലിപ്പം ഒരു പ്രദേശത്തെ കുറിച്ച് വർണിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചൊരു ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒക്കെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും അത് നമുക്കത് എനിക്ക് തോന്നുന്നു ഇലക്ട്രോണിക്സ് മൊബൈലിലൊക്കെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കത് മനസ്സിലേക്ക് കടന്നുവരുന്നത് അച്ചടിച്ച പുസ്തകങ്ങളിൽ കൂടെ തന്നെയാണ് ഇപ്പം എം ടിയുടെ നാലുകെട്ട് രണ്ടാമൂഴം അങ്ങനെയൊക്കെയുള്ള പുസ്തകം എന്തായാലും ശരി ഇലക്ട്രിക്സ് ഇലക്ട്രോണിക്സ് അതായത് ഇലക്ട്രോണിക്സ് പതിപ്പുകളേക്കാളും താൽപര്യം അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെയാണ്

എന്താണ് പറയുക അതിലേക്ക് മുഴുകി എന്നെ സംബന്ധിച്ച് എനിക്ക് അതിലേക്ക് തന്നെ ഇഴുകി ചേർന്ന് പോകാൻ പറ്റുന്നുണ്ട് അതിലോട്ട് അലിഞ്ഞുചേർന്ന് പോവാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ കൂടുതൽ മിഴിവാർന്ന നമ്മള മനസ്സിലേക്ക് വരുന്നുണ്ട് അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മൊബൈലിൽ കഥകൾ വായിച്ചിട്ടുള്ള ആളും ആണ് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഈ പറയുന്ന രണ്ട് വ്യത്യാസം എനിക്ക് കൂടുതൽ ഇഷ്ടം അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നത് തന്നെയാണ്